അത് ശരി ആ ആ വീട്ടില് എപ്പോൾ ഉണ്ടാകും ആറ് മണിക്ക് ശേഷമാണ് ആ ആ അന്നേരം ഞാൻ അവിടെ വരാം അതെ അല്ലെ അപ്പോൾ റെഗുലേറ്ററാവില്ല കംപ്ലൈയിൻറ്റ് അതിൻ്റെ സ്റ്റാർട്ടറാകും സ്റ്റാർട്ടറ് മാറ്റിയിട്ടാണ് ചിലപ്പോൾ അത് വർക്കാവും അപ്പോൾ അത് വന്ന് നോക്കിയാലേ പറയാൻ പറ്റുകയുള്ളു ആ ഏത് ഫാൻ ആണ് ഖേത്താൻ ആ ആ സ്റ്റാർട്ടർ ഇപ്പോൾ ഏതായാലും കുഴപ്പം ഇല്ല അതിപ്പോൾ കൊണ്ടുവന്നാല് നമുക്കത് വെച്ച് കഴിഞ്ഞാൽ ശെരിയാകും എന്ന് എനിക്ക് തോന്നുന്നു റെഗുലേറ്ററാവില്ല കംപ്ലെയിൻറ്റ് സ്റ്റാർട്ടർ ആകാനാണ് വഴി ആ ആ ആ അത് ഹീറ്ററെ ചിലപ്പോൾ ഓവർ ലോഡായിട്ട് ഒരു സ്വിച്ച് ഉണ്ട് ഹീറ്ററിൻ്റെ പുറത്ത് ആ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ചിലപ്പം ഒന്ന് അത് അത് ഓണായി കിടക്കുവായിരിക്കും ഓ ഓവർലോഡ് വരുമ്പോൾ ചിലപ്പോൾ അത് സ്വിച്ച് ഓണായി പോകുന്നത് അപ്പോൾ അത് കറക്റ്റായി കിടക്കും ആ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അത് കുഴപ്പം ഇല്ലെങ്കില് അത് വേറൊന്നും ചെയ്യേണ്ടിയില്ല അതൊന്ന് നോക്കിയാൽ മതി ആ അതിന് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ടിവരില്ല ആ അപ്പോൾ ഞാന് എന്തായാലും ആ വൈകിട്ട് ഞാൻവിളിച്ചിട്ട് വരാം വീ ആ ഓക്കേ ഓക്കേ ആ അതെ ആ ഞാൻ അവിടേ ആ ടൂൾസ് വല്ലതും ഉണ്ടോ ഞാൻ വേ വേ വേ വീട്ടിൽ നിന്ന് അല്ല വരുന്നത് ഞാനത് വേറൊരിടത്തുനിന്നാണ് വരുന്നത്

അല്ല വൈകിട്ട് ഇവിടെ പവർ കട്ടിങ് എന്നും ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ എന്തായാലും ആ ഇൻവേർട്ടർ ഉണ്ട് ഓക്കേ ഓക്കേ ബൈ ദ ബൈ ആ ആ ഇൻവേർട്ടറില് ഫാൻ വർക്ക് ചെയ്യില്ലെ ആ അപ്പോൾ അത് വന്ന് നോക്കാം കുഴപ്പമില്ലല്ലൊ ഓക്കേ